ഞാൻ ഇങ്ങനൊരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹൗസ് ബ്രോക്കർക്ക് കോഴിക്കോടിൽ പിന്നേ ഞാനിപ്പൊരു ആ ഞാനപ്പോൾ ഇവിടെ ടെക്നോ കെമിക്കൽസിലാ വർക്ക് ചെയ്യുന്നത് അപ്പെനിക്കിപ്പൊരു ഒരു വർഷത്തേക്ക് ഒരു റെന്റിനൊരു വീട് വേണമായിരുന്നു അപ്പോൾ നിങ്ങളയിലൊരു ഫാമിലി ഒരു ഫാമിലിക്ക് പറ്റിയൊരു രണ്ട് കുട്ടികളും ഒരു അച്ഛൻ അമ്മ എന്നിങ്ങനെ ഒരു ഒരു ഫാമിലിക്ക് വേണ്ടീട്ട് ഒരു ഇത് ഒറു ഒരു ഒരു ഹൗസ് വേണം അപ്പം നിങ്ങടടുത്ത് അതുണ്ടോ ഒരു വീടായി തന്നെ ഇപ്പോൾ ഒരു വർഷത്തേക്കായതുകൊണ്ട് ഒരു വീടായിട്ടാണ് വേണ്ടത് അപ്പോൾ കോട്ടേഴ്സൊക്കെ അകുമ്പോൾ സൗകര്യം കുറയുന്നത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് വീടായി തന്നെ വേണ്ടത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത വീടാണ് വേണ്ടത് പിന്നെ ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടാ വേണ്ടത് ഇപ്പോൾ വെ ആ അപ്പോൾ പുറത്തൂന്നൊന്നും സാധനൊന്നും കേറ്റണ്ടല്ലോ അപ്പോൾ ഫുൾ ഫർണിച്ചറ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒള്ള വീടാ വേണ്ടത് അപ്പോൾ നിങ്ങടടുത്ത് അതുപോലുള്ള വീടുണ്ടോ

ആ ആ ആ അതുപോലെ മതി ആ രണ്ട് റൂമില്ലേ ബഡ്ജറ്റിപ്പോൾ ഒരു പത്തിരുപത്തയ്യായിരം രൂപ വരെ പൂവാം ഇനിയിപ്പോൾ ഇപ്പോൾ ആ ഫുൾ ഫർണിഷ്ഡ് ഇപ്പോൾ പിന്നെ ആ ഈ മിക്സി അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് മിക്സിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങടെ അടുത്തുണ്ട് പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണം

ഞാനേ നൈറ്റ് എം ജി റോഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു അധികം ഉള്ളിലോട്ടുള്ള സ്ഥലം വേണ്ട കൊച്ച് കൊച്ച് കൂട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് ആയത് കൊണ്ട് പിന്നെ ഒരു ടൗൺ ഏരിയായിൽ തന്നെ മതി

ഈ നമ്പറിലൊന്ന് വിളിക്കാവോ ഒന്ന് അന്വേഷിച്ച് ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി ആ ആ ഞാനാടുത്ത മന്താണ് അവിടെ വർക്ക് വർക്കിന് കയറുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണം അതിപ്പോൾ ഒരു ഒക്ടോബറൊക്കെ ആകുമ്പോൾ കയറണം അപ്പോൾ അതിന് മുന്നേ ഒന്ന് വന്ന് നോക്കണം അപ്പോൾ നിങ്ങൾ ഇത് അറീച്ചിട്ടൊന്ന് വന്ന് നോക്കാമായിരുന്നു ആ ആ കുഴപ്പമില്ല ആ ആ ആ എന്നാൽ ഓക്കെ